ഞാൻ കൂടുതലായും തയ്ക്കാൻ ഉപയോഗിക്കുന്നത് എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് ഡ്രസ്സ് തയ്ക്കാൻ അതായത് ഉടുപ്പ് തയ്ക്കുമായിരുന്നു പിന്നെ ചുരിദാറൊക്കെ എനിക്ക് വേണ്ടിട്ട് ചുരിദാറൊക്കെ തയ്ക്കും ഞാൻ പുറത്തോട്ട് ആർക്കും ഇതുവരേം തയ്ച്ച് കൊടുക്കാൻ തുടങ്ങിട്ടില്ല ചങ്ങനാശ്ശേരി ജാസിൻ്റെ കീഴിലുള്ള ഇവിടെ പഠിപ്പിക്കുമ്പോഴാണ് ഞാനും പഠിച്ചിട്ടുള്ളത് ജാസിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ആണ് ഞാൻ തയ്യൽ പഠിച്ചത് അത് പക്ഷേ എനിക്ക് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ തയ്ക്കാൻ സമയം കിട്ടാറില്ല പ്രതിഭലത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും അത്യാവശ്യം എനിക്ക് തയ്ക്കാനൊക്കെ ചുരിദാറ് തയ്ക്കാനും ഉടുപ്പ് തയ്ക്കാനൊക്കെ അറിയാം പിന്നെ ബ്ലൗസ് ഞാൻ ശരിയായിട്ട് പഠിക്കാൻ എനിക്ക് സമയം കിട്ടീല്ല അത് കാരണം ബ്ലൗസ് തയ്ക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചുരിദാറൊക്കെ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നിപ്പോൾ ഒക്കെ കുറെ ഒക്കെ തയ്യലീന്ന് വിട്ട് പോകുന്ന തുണികളൊക്കെ തയ്ക്കുക പിന്നെ അത്യാവശ്യം ചുരിദാറ് തയ്ക്കുക ഇതൊക്കെ ഉള്ളു അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇപ്പം ചെയ്യുന്നില്ല എങ്കിലും എനിക്ക് തയ്ക്കുന്ന കാര്യത്തിൽ ഒത്തിരി ഇൻട്രസ്റ്റായിട്ടുള്ള കാര്യമാണ് മോട്ടറൊന്നും പിടിപ്പിക്കാതെ തന്നെ ആണ് ഞാൻ മെഷിനുപയോഗിക്കാറുള്ളത് കാരണം അതിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ ചവിട്ടി വച്ച് തയ്ക്കാൻ വേണ്ടീട്ടാണ് കൂടുതലും താല്പര്യം പിന്നെ പ്രതിഭലം മേടിക്കാത്തത് കൊണ്ടൊരു വെല്ലുവിളിയെന്നുള്ളൊരു പ്രശ്നം എനിക്ക് ഉണ്ടാകാറില്ല പിന്നെ അത്യാവശ്യം ആർക്കേലും ഒക്കെ സഹായിക്കാൻ വേണ്ടി തയ്ച്ച് കൊടുക്കും എന്നുള്ളതെ ഉള്ളു വീട്ടിൽ എനിക്കും ആവശ്യമുള്ളത് കുട്ടികൾക്കും ആവശ്യമുള്ളതൊക്കെ തയ്ക്കും അല്ലാതെ ഇപ്പം വേറെ സമയം കിട്ടാറില്ല കൂടുതലായിട്ട് തയ്ക്കാൻ വേണ്ടിട്ട്